ഹലോ

ആ കേൾക്കാം സുലഭ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ സൂപ്പർ മാർക്കറ്റ് അല്ലേ ആ എനിക്ക് ഒരു ഫേയ്സ് ക്രീം വേണമായിരുന്നു ഏതൊക്കെ ഉണ്ട് അവിടെ ഹിമാലയ ഒക്കെ ഉണ്ടോ അപ്പോൾ ഓൺലൈൻ ഓൺലൈൻ ഡെലിവറി ഉണ്ടോ ആണോ ആ ഓഫറുകൾ വല്ലതും ഉണ്ടോ അപ്പോൾ ഹിമാലയ ഹിമാലയയുടെ പ്രോഡക്ടസിനൊക്കെ എന്നാ റേയ്റ്റ് ആവും ആന്നോ ഇപ്പം ഞാൻ വന്നാൾ എനിക്ക് പെട്ടെന്ന് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുമോ എനിക്ക് ഞാൻ ബിസി ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ആ ആ നിങ്ങളെ നിങ്ങളെ ലൊക്കേഷൻ ഒന്ന് പറയാമോ ആം ആം ഞാൻ അങ്ങോട്ട് ഇടയ്ക്ക് എൻ്റെ ഓഫീസ് കാര്യത്തിന് ഞാൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ വന്നു പർച്ചെയ്സ് ചെയ്തോളാം ഐ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ലൊക്കേഷൻ തന്നാൽ അവിടോട്ട് ഡെലിവറി ചെയ്യുമോ ആ ആ അപ്പോൾ ഞാൻ അയക്കാം ഈ നമ്പറിലോട്ട് ഞാൻ പറഞ്ഞയക്കാം ഹോം ഡെലിവറി വേണമെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഞാൻ വന്നു പർച്ചെയ്സ് ചെയ്തോളാം താങ്ക് യു യുവർ സർവീസ്